ഒരു പ്രഫഷണൽ കളികളിൽ നിന്നൊക്കെ ഭീഷണിയാണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രഫഷനാവുമ്പോൾ നമ്മളൊരു ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മളെന്തായാലും വർക്ക് കമ്പ്ലീറ്റ് ചെയ്യണം അപ്പോൾ കളിക്കാൻ സമയം കണ്ടത്തേണ്ടി വരും നമ്മള് മുൻപ് നമ്മള് ചൈൽഡ് ഹുഡ് സമയത്ത് നമ്മള് കളിച്ചത് പോലേയും കുട്ടിക്കാലത്ത് നമ്മള് ഇങ്ങനെ ഒക്കെ നടന്നത് പോലെയും നടക്കാൻ പറ്റില്ല ഒരു പ്രഫഷൻ വരാൻ നേരത്ത് അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ പ്രഷറ് കാരണം കളികളില് ബാധിക്കുമൊന്നു ചോദിച്ചാൽ ബാധിക്കും എങ്ങനെ പോയാലും ബാധിക്കും അതെന്ന് വെച്ചാൽ നമ്മൾക്ക് തരുന്ന വർക്ക്കള് ചെയ്യും പിന്നെ ചിലപ്പം നല്ല നല്ല ജോലികളായിരിക്കും ഓരോരോ ജോലികളുടെ ഇത് ഓരോരോ പ്രഫഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോരുത്തരുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാലും മാക്സിമം നമ്മള് ഈ സൺഡേ ഒക്കെ ലീവ് കിട്ടിയാലും മിക്കവരും കളിക്കാൻ ശ്രമിക്കും അതായത് ഇതിനോട് ക്രേസ് ഉള്ള ആരായാലും കളിക്കാൻ ശ്രമിക്കും പ്രഫഷൻ ബാധിക്കുവോന്ന് ചോദിച്ചാൽ ചിലർക്ക് ബാധിക്കും അൽ അല്ലാത്തവർക്ക് ബാധിക്കും പിന്നെ അത് ശരിയാവും പിന്നെ ഭീഷണി ആകുമോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാകും നമുക്കെന്തായാലും ഒരു പ്രഫഷൻ വരാൻ നേരത്തെന്തായാലും കാര്യങ്ങള് വരാൻ നേരത്തൊരു ഭീഷണി തന്നെയാണ് നമുക്ക് പണ്ടത്തെ കണക്ക് കളിക്കാനൊന്നും തോന്നില്ല പിന്നെ കളിക്കണം നമുക്ക് മെൻറ്റലി കാണും പക്ഷേ നമ്മുടെ വർക്ക് ലോഡ് നമുക്ക് വരുന്ന പ്രഷർ നമുക്ക് വരുന്ന ഓഫീസ് ലോഡ് പിന്നെ അവിടുത്തെ നാളെ ചെല്ലാനുള്ളത് അത് പിന്നെ നമുക്കൊരു കുടുംബം അങ്ങനെ ഒക്കെ വരാൻ നേരത്ത് ഭയങ്കര പ്രശ്നമാകും എന്തായാലും ഒരു ഭീഷണി ആകാൻ ചാൻസുണ്ട്